നമ്മളുടെ കേരളസർക്കാർ ഒരുപാട് നല്ല ആരോഗ്യ പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷെ എങ്കിലും എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളത് നമ്മളുടെ കോവിഡ് കാലഘട്ടത്തിൽ നൽകിയിരുന്ന വാസിനേഷൻ അതുപോലെതന്നെ അന്ന് നൽകിയിരുന്ന സ്വാപ്പ് ടെസ്റ്റ് ഈ രണ്ടെണ്ണം വളരെ അതായത് പൂർണ്ണമായും സൗജന്യമായാണ് നമ്മൾക്ക് നൽകികൊണ്ടിരുന്നത് ഇത് എനിക്ക് വളരെ ആശയകരമായി തോന്നിയിട്ടുണ്ട് പ്രതീകമായിട്ടുള്ള കാരണം എന്താണെന്നുവെച്ചാൽ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുക്കെപ്പോഴും പലരീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടലുണ്ട് കാരണം സാധാരണ സ്വകാര്യ ആശുപത്രികളിലെല്ലാം രണ്ടായിരം മൂവായിരം രൂപക്കാണ് ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു വാസിനേഷൻ നൽകുന്നത് ഈ ഒരു കാരണം കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇത് ലഭ്യമല്ലാത്ത ഒരവസ്ഥ വന്നിരുന്നു എന്നാൽ നമ്മളുടെ നമ്മളുടെ ആരോഗ്യ കേരള ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ നൽകുന്ന നമ്മുടെ സർക്കാരിൻ്റെ ചില പ്രത്യേക എന്താ പറയുക ഇടപെൽ ഇടപെടലുകൾ കൊണ്ടുതന്നെ നമുക്ക് ഒരുപാട് നല്ല ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വളരെ അഭിമാനം തോന്നുന്നു കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതിക്ഷിക്കുന്നില്ല പക്ഷെ ഇത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാവർക്കും ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ നാം അഭിമാ നാം ഓരോരുത്തരും അഭിമാനപ്പെടേണ്ടതുണ്ട് കാരണം നമ്മളുടെ സർക്കാർ ആണ് നമുക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് നമുക്ക് വളരെ അധികം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരുപാട് ഇന്നും സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സൗജന്യമായി കൊടുത്തിരുന്നില്ല എന്നു ഞാനറിഞ്ഞു അതു കൊണ്ടാണ് ഞാൻ പ്രത്യേകമായി ഈ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയുക വാക്സിനേഷനായാലും ടെസ്റ്റായാലും സൗജന്യമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയണം എന്നുഞാൻ ആലോചിക്കാൻ കാരണം ഈ സേവനങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയോജങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമായ ഒരു കാര്യമാണ് കാരണം പാവപെട്ട ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ഡോസ് അല്ലെങ്കിൽ കരുതൽ ഡോസൊന്നും എടുക്കാൻ എല്ലാവർക്കും കഴിവുണ്ടാകണം എന്നില്ല പക്ഷെ ഇത്തരത്തിൽ സൗജന്യമായി നമ്മൾക്ക് വേണ്ടി അവർ തന്നെ അതൊക്കെ തീയതികളൊക്കെ കുറിച്ച് നമ്മളെ വിളിച്ച് അറിയിക്കുമ്പോൾ ഒരുപാട് നമുക്ക് ഉപകാരപ്പെട്ടിരുന്നു എന്നുപറയാൻ ഞാൻ അഭിമാനിക്കുന്നു